ഞാൻ ഓൺലൈൻ വഴി അങ്ങനെ ഉള്ള ബുക്കുകളൊന്നും ബുക്ക് സ്റ്റാൾ നിന്നൊക്കെയുള്ള ബുക്കുകളൊക്കെ എടുത്ത് വായിക്കാറുള്ളൂ അല്ലാതെ അല്ലാതെ ഇങ്ങനെ ബുക്ക് ചെയ്ത് ഓൺലൈൻ വഴി കിട്ടുന്ന ഒന്നും വായിക്കാറില്ല അച്ചടിച്ച പുസ്തകങ്ങളക്കെയാണ് വായിക്കാറുള്ളത് അങ്ങനെ ബുക്ക് സ്റ്റാളിൽ പോയിട്ട് നല്ല പുസ്തകങ്ങളൊക്കെ നല്ല ഇഷ്ടമുള്ള നോവല് അതൊക്കെ എടുത്ത് വായിക്കാറുണ്ട് ദേണ്ടെ നല്ല പണ്ടത്തെ നോ തുടർക്കഥകളൊക്കെയുണ്ടല്ലോ നോവല് പോലെ അതുപോലൊക്കെ ഉള്ള കഥകളൊക്കെ എടുത്ത് വായിക്കാറുണ്ട് പിന്നെ പിന്നെ വേറെ ഈ ഓൺലൈൻ വഴി അങ്ങനെ ബുക്ക് സ്റ്റോള് എന്ന് ഞാന് എടുത്ത് വായിക്കാറില്ല ബുക്ക് ബുക്കെടുത്ത് വായിക്കാറില്ല അച്ചടിച്ചത് എടുത്ത് അച്ചടിച്ച കോപ്പികളൊക്കെ എടുത്ത് വായിക്കാറുണ്ട് നോവലുകള് തുടർക്കഥ അങ്ങനെയൊക്കെ ഉള്ള ഇതിനെ ഈ ബാലരമ അമർചിത്രകഥ അങ്ങനത്തെ ഉള്ള ബുക്ക് അങ്ങനെ കുഞ്ഞുനാളില് അതൊക്കെ ഒരുപാടെടുത്ത് ഞാൻ വായിച്ചിട്ടുണ്ട് അതൊക്കെ എനിക്ക് ഇഷ്ടമാണ് പിന്നെ അല്ലാതെ ഈ അല്ലാതുള്ളതൊന്നും എനിക്കത്ര ഇത് പോ അറിയത്തില്ല പിന്നെ ബാ ബാലരമ എന്നൊക്കെ എനിക്കിഷ്ടവാണ് നേരത്തെ ഒക്കെ മനോരമ മംഗളം അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അതിനകത്തൊക്കെ ചെറിയ നല്ല നോവലുകളക്കെയുണ്ട് അതൊക്കെ വായിക്കും അല്ലാതെ വലിയ ബുക്ക്സ്സ് വലിയ ബൊ പുസ്തക ശേഖരണങ്ങളൊന്നുവില്ല നല്ല നല്ല നോവലുകളൊക്കെ പണ്ട് പണ്ടൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയം ലൈബ്രറിയിൽ ഒക്കെ പോയിട്ട് നല്ല നല്ല കഥയുള്ള പുസ്തകങ്ങളൊക്കെ എടുത്ത് വെച്ച് നല്ലോണം വായിക്കാറുണ്ട് അപ്പോൾ ഈ ആഴ്ച്ച എടുത്തിട്ടടുത്താഴ്ച്ച തീർത്തു കൊടുക്കുന്ന അങ്ങനെ ഒക്കെ ഉണ്ട് ഇതിനിപ്പം പ്രായ ഇപ്പം അങ്ങനെയൊന്നും വായിക്കാറില്ല പ്രായവായതോ സമയവുമില്ല എന്നാലും എവിടെങ്കിലും കിട്ടുവാണെങ്കിൽ ചില പിള്ളാരൊക്കെ ഓരോ ഇത് എടുത്തുകൊണ്ട് വരുമ്പോഴത്തെന് ഈ ബാലരമ അതൊക്കെ എടുത്ത് വായിച്ചിട്ട് അതിനകത്ത് ഉള്ള ചില പദ പ്രദേശം പദ പദ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലൊ അതൊക്കെ എടുത്ത് പൂരിപ്പിച്ചൊക്കെ അയയ്ക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു നമ്മളറിയാത്ത കാര്യങ്ങള് മറ്റുള്ളവരോട് ചോദിച്ചിട്ട് അത് എങ്ങനെയാണ് ചിലപ്പം പിള്ളേരെ പഠിപ്പിച്ച സ്കൂൾ ടീച്ചറിനോടൊക്കെ ഞാൻ ചോദിക്കുവായിരുന്നു ടീച്ചറെ അത് രണ്ടക്ഷരം വിട്ടിട്ടുള്ളത് വരുന്നതും അങ്ങനെ ഓരോന്നൊക്കെ ഇത് ഇന്നത് എവിടെയാണ് ഇത് ഇത് അങ്ങനൊക്കെ ഉള്ള പദ പ്രശ്നം ഉണ്ടല്ലോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഞാൻ വാ എടുത്ത് വെച്ച് വാ ഇത് നോക്കിയിട്ട് അത് കണ്ട് പിടിച്ച് എഴുതാനെനിക്കൊര് വലിയ ഒര് ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഉള്ളതേ ഉള്ളു അല്ലാതെ ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത് വായിക്കാനോ എനിക്കതറിയത്തില്ല ഉള്ള കാര്യം പറയാമല്ലൊ എനിക്ക് അല്ലാതെ ഉള്ള പുസ്തകങ്ങളാണ് എനിക്ക് ഒത്തിരി ഇഷ്ടം വന്നിരിക്കുന്നത് പിന്നെ അതെനിക്ക് അതിനേക്കുറിച്ച് അത്രയുമേ എനിക്ക് അറിയത്തുള്ളൂ